മേ ഐ കം ഇൻ സാർ എൻ്റെ പേര് കൃഷ്ണപ്രിയ ഞാൻ പാലക്കാടു നിന്ന് ആ ഉണ്ട് ഉണ്ട് ഇതാ ആ അതും എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് ആ ഞാൻ അന്വേഷിച്ച് ഉണ്ടായിരുന്നു

ഞാൻ പി ജി ആ ഞാൻ ഇലക്ട്രോണിക്സ് തന്നെ ആണ് ആ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സ് ബി സി എ അതൊരു ഒരു വർഷം ആ ഒരു ആറു മാസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ നാട്ടിൽ ഇല്ല പുറത്ത് ആയിരുന്നു പാലക്കാടിൽ നിന്ന് പുറത്ത് ആ അവിടെ നിന്ന് അവിടത്തന്നെ താമസിച്ചിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ ഫ്രണ്ട് ഓഫീസിൽ

എനിക്ക് ഒരു ആറ് മാസം ആ അവിടെ മാത്രം വർക്ക് ചെയ്തിട്ടുള്ളൂ ആ അതെ അതെ അതെ അവിടെ ഒരു സെവൻ്റി ഫ്രീയാണ് ഓക്കെ ആ അടുത്ത് ആയതുകൊണ്ട് പോയി വരാം ആ ഓക്കെ ഓക്കെ ഇൻക്രിമെൻ്റോ

ആ കൊണ്ടു വന്നിട്ടുണ്ട് ആ ശരി ആ ഓക്കെ താങ്ക് യു